ഇന്ത്യൻ ഭക്ഷണം രുചികളുടെ ലോകം തന്നെയാണെന്ന് പറയാൻ സാധിക്കും ഇന്ത്യൻ ഭക്ഷണങ്ങൾ നിരവധി വ്യത്യസ്ത രുചികളുടേയും അതേപോലെ അതിൻ്റെ ഗന്ധത്തിൻ്റേയും ഒരു കൂട്ട് തന്നെയാണ് ഇത് പണ്ടുകാലത്തെ ഒരു നീണ്ട ഒരു ഹിസ്റ്ററി തന്നെ ഉണ്ടെന്ന് പറയാം ഇതിൻ്റെ പിന്നിൽ കൂടാതെ നിരവധി പ്രദേശങ്ങളുടേയും പാരമ്പര്യങ്ങളുടേയും സ്വാധീനം ഇതിനെ ഇതിൻ്റെ സ്വാദ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സുഗന്ധവ്യഞ്ജനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭക്ഷണത്തിൻ്റെ ഹൃദയമാണെന്നുതന്നെ സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കും അതൊരു പ്രധാന ഭാഗമാണ് ഭക്ഷണത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഗരം മസാല ചുവന്ന മുളകുപൊടി ജീരകം മല്ലി ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്താം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ ഓരോ വിഭവത്തിനും സുഗന്ധവ്യഞ്ജനങ്ങളുടെ അളവ് എടുത്ത് നമുക്കതിൽ പാകം ചേർക്കാൻ പറ്റുന്നു ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദോശ ഇഡലി അതേപോലുള്ള ഭക്ഷണങ്ങളിൽ തന്നെ നമുക്ക് ഒരു പ്രത്യേക സ്വാദ് ഇന്ത്യൻ ഭക്ഷണമായതുകൊണ്ട് തന്നെ അതിൽ കണ്ടെത്താൻ സാധിക്കും കൂടാതെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബട്ടർ ചിക്കൻ തന്തൂരി ചിക്കൻ എന്നിവയെല്ലാം വളരെ പ്രസിദ്ധമായ വിഭവങ്ങളിൽ ഇന്ത്യയിൽപ്പെടുന്ന കുറച്ച് വിഭവങ്ങളാകുന്നു കൂടാതെ ഈ ഈ വിഭവങ്ങൾ കൂടാതെ മധുര പലഹാരങ്ങളുമുണ്ട് ഗുലാബ് ജാം ജിലേബി രാസമലൈ ബെർഫി എന്നിവ ഇതിലുൾപ്പെടുന്ന പ്രസിദ്ധമായ മധുര പലഹാരങ്ങളാണ് മസാലകളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഏതൊരു വിഭവം ഉണ്ടാക്കിയാലും അത് ക്രീമി ആയിക്കോട്ടെ സ്പൈസി ആയിക്കോട്ടെ എന്തിലായാലും ഒരു ഫ്ലേവറ് അത്യാവശ്യമാണ് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഒരു പ്രത്യേക രുചിയാണെന്നുതന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യൻ ഭക്ഷണങ്ങളുടെ വെറൈറ്റി തരത്തിലുള്ള സുഗന്ധങ്ങളും രുചികളും പാരമ്പര്യമായി വാഗ്ദാനം ചെയ്യുന്ന ഒരു കല തന്നെയാണ് ഈ ചേരുവകൾ കൃത്യമായി ചേർത്തുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇന്ത്യൻ ഭക്ഷണത്തിന് ലഭിക്കുന്നത്